ഹലോ ഗുഡ് മോർണിംഗ് ഞാൻ കോട്ടയത്ത് നിന്നാണ് വിളിക്കുന്നത് ഞാൻ ഇന്നലെ ഒന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു ഓർമ്മയുണ്ടോ എന്നറിയില്ല ബിജു എന്നല്ലേ പേര് അത് എനിക്ക് എയർപോർട്ടിൽ പോവണമായിരുന്നു അപ്പം എയർപോർട്ടിലേക്കൊരു ടാക്സി ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു എനിക്കൊരു വൈകിട്ടത്തേക്ക് പോകാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പം നിങ്ങൾക്ക് വേറെ ഓട്ടം വല്ലതും ഉണ്ടോ ഇല്ലെങ്കിൽ എനിക്ക് വേണ്ടിയിട്ടൊന്ന് വരാൻ പറ്റുമോ വൈകിട്ടത്തേക്ക് പോയാൽ ഇവിടെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ കൊണ്ട് വിടണം കൊണ്ട് വിട്ടേച്ച് നിങ്ങൾക്ക് പോരാം തിരിച്ച് പോരാം അവിടെ അകത്തോട്ടൊന്നും കയറാൻ പറ്റത്തില്ലല്ലോ അപ്പം അതിന് വേണ്ടിയിട്ടൊന്ന് പറയാൻ വേണ്ടിയിട്ടായിരുന്നു എത്ര മണിക്ക് നിങ്ങൾ വരും അതൊന്ന് എന്നെ ഒന്ന് അറിയിക്കാൻ പറ്റുമോ എൻ്റെ ഫോൺ നമ്പർ വേണമെങ്കിൽ തരാം ആ ഫോൺ നമ്പറിൽ നിങ്ങൾ വിളിച്ചാൽ മതി ലൊക്കേഷൻ അയയ്ക്കാം ഒന്ന് വിളിക്കണേ എത്രയാവും പേയ്മെൻറും കൂടെ എത്രയാവും എന്നൊന്ന് പറയണേ നിങ്ങളേ ഇവിടുന്ന് സാധാരണ ഒരു ഏകദേശം ഒരു രണ്ട് രണ്ടര മണിക്കൂറിൽ കൂടുതൽ ഉണ്ടെന്ന് തോന്നുന്നു എയർപോർട്ടിൽ പോവുന്നതിന് അപ്പം നിങ്ങൾ പേയ്മെൻറും കൂടെ എത്രയാണെന്നൊന്ന് അറിയിച്ചാൽ വളരെ ഉപകാരമായിരിക്കും